ഹലോ എനിക്കൊരു അതായത് എനിക്ക് പുതിയതായിട്ടുള്ളൊരു സംരഭം തുടങ്ങാൻ വേണ്ടിയായിരുന്നേ അതൊരു ഹോട്ടൽ ആണ് റെസ്റ്റോറന്റ് ആയിട്ടല്ല സാദാ ഹോട്ടൽ ആയിട്ട് അതെ അതെ അപ്പോൾ ഒരു ലോണിന് വേണ്ടിയായിരുന്നു അപ്പം പിന്നെ എത്ര സ എത്ര പൈസ വരുന്നത് ഗോൾഡ് വെച്ചിട്ട് പിന്നെ സ്ഥലം ഒരു അമ്പത് സെന്റ് സ്ഥലം ഉണ്ട് അപ്പോൾ അതുംകൂടെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയായിരുന്നേ ഒരു പത്ത് ലക്ഷം

അമ്പത് സെന്റ് സ്ഥലം ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുവോ അതോ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അല്ല നല്ല റോഡ് സൈഡ് ഉള്ള സ്ഥലം അതായത് നല്ല അതായത് ടൗൺ ഏരിയ ആണ് ഇവിടെ അത്യാവശ്യം അതായത് ഒരു സെന്റിനൊരു പിന്നെ മൂന്ന് ലക്ഷം നാല് ലക്ഷം ആ ഒരു റേറ്റ് പറയുന്നുണ്ട് അപ്പം നമുക്കാ വാല്യൂ അതിന്റെ വാല്യൂവിനനുസരിച്ചല്ലേ പൈസ കിട്ടുക

ഓക്കേ ഓക്കേ

എത്ര പെർസന്റേജ് ആണ് പലിശയൊക്കെ അതൊന്ന് അതൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നേ

ആ ഓക്കേ നാല് ശതമാനം അല്ലേ വർഷത്തിലാണോ അടയ്ക്കേണ്ടത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അടയ്ക്കാൻ പറ്റുവോ അതോ ഇങ്ങനെ ഓരോ മാസം അങ്ങനെയുള്ള കണക്ക് അത് എന്താണ് എങ്ങനെയാണ് ആ ആറ് മാസം കഴിയുമ്പോൾ അല്ലേ

ഓക്കേ ഓക്കേ ഇല്ല എന്നാൽ ഞാൻ മൺഡേ എന്നാൽ വരാം എന്റെ എവിഡൻസ് ഒക്കെ എടുത്തിട്ട് വരാം ആ ഓക്കേ ആ ഓക്കെ താങ്ക് യൂ സാർ